ബൈക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ വളരെ വളരെ ഇഷ്ട്ടമുള്ള ഒരു കാര്യമാണ് ബൈക്കിങ് ചെറുപ്പത്തിൽ തന്നെ ഞാനാദ്യമായി ഉരുട്ടി കൊണ്ട് നടന്നത് ഒരു ടയർ മാത്രമായിരുന്നു എല്ലാവരുടെയും കൂട്ടത്തിൽ ഫ്രണ്ട്സിൻറ്റെയൊക്കെ കൂട്ടത്തിൽ പിന്നെ അതിൽനിന്നും എനിക്ക് ഒരു സൈക്കിൾ കിട്ടി ഒരു ഹെർക്കുലീസിൻറ്റെ സൈക്കിൾ ആയിരുന്നു അത് അത് ഓടിക്കാൻ തുടങ്ങി വളരേ ഇഷ്ട്ടമുള്ള ഒരു കാര്യമായിരുന്നു സൈക്ലിങ് ചെറുപ്പം തൊട്ടേ ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരുടെയും സൈക്കിൾ എടുത്തിട്ട് പലയിടങ്ങളിലും പോയിട്ടുണ്ട് സെ ഇവൻ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോലും പോയിരുന്നത് സൈക്കിളിൽ നിന്നായിരുന്നു പിന്നെ അതിൽ നിന്നും ഞാനൊരു പത്താം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ ബൈക്കോടിക്കാൻ പഠിച്ചു സ്കൂട്ടിയായിരുന്നു ആദ്യം തന്നെ ഓടിക്കാൻ പഠിച്ചത് സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചപ്പോൾ തന്നെ അമ്മക്കൊരു പുതിയൊരു സ്ക്കൂട്ടി വാങ്ങി പിന്നെ അതിൻ മേലായി കറക്കം മൊത്തം സ്ക്കൂട്ടി ഓടിക്കാൻ എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്കിഷ്ട്ടമായിരുന്നു പിന്നെ സ്കൂട്ടിയിൽനിന്നുപരി ഗിയറുള്ള ബൈക്കുകളോടായിരുന്നു എനിക്ക് ഇഷ്ട്ടം കൂടുതൽ പക്ഷെ അന്നെനിക്ക് ഗിയറുള്ള ബൈക്കോടിക്കാൻ അറിയത്തില്ലായിരുന്നു പിന്നെ ചെറിയച്ചൻ ഒരു ഗിയറുള്ള ബൈക്ക് വാങ്ങിച്ചു ഞങ്ങളതിൽമേൽ നിന്നും പഠിച്ചു ഞാനും എൻറ്റെ കസിനും കൂടെയായിരുന്നു പഠിച്ചത് ഗിയറുള്ള ബൈക്കോടിക്കാൻ ഒരു പ്രത്യേക രസമാണ് പിന്നെ ഗിയറുള്ള ബൈക്കിൻ മേലായി കറക്കം മൊത്തം ഇതിൻറ്റെ പ്രത്യേകത എന്താന്നുവച്ചാൽ നമ്മൾ ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാലും അതിൻറ്റെ അടുത്ത ഘട്ടം പഠിക്കാനുള്ളൊരു മാനസിക ത്വര നമ്മള് നമ്മുടെ ഉള്ളിൽ ഇവർക്ക് സ്ഥാപിക്കാൻ കഴിയും അതാണ് ഈ ബൈക്കിങ്ങിനോടുള്ള അത്രേ ആവേശം പിന്നെ യാത്ര ചെയ്യാനെനിക്കൊരുപാട് ഇഷ്ട്ടമാണ് അതുകൊണ്ടാണെനിക്ക് ബൈക്കിങ്ങിനോട് ഇത്ര താത്പര്യമുള്ളത് ബൈക്കിങ്ങ് എന്ന് പറയുമ്പോൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ബൈക്കെന്നു പറയുന്നത് നിഞ്ച ഇസഡ്എക്സ്ആർ ടെൻ ഇസഡ്എക്സ് ടെൻആർ എന്ന മോഡലാണ് അതിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്കാണത് റിവേ ഉദാഹരണത്തിന് കോർണർ ചെയ്യാനും വീതിയടിക്കാനും അങ്ങനെ ഉള്ള സ്റ്റണ്ട് കാര്യങ്ങൾക്കെന്നതിനുപരി യാത്ര ചെയ്യാനും എല്ലാത്തിനും ഒരു നല്ല ബൈക്കാണ് സിക്സ് ഹൺഡ്രഡ് സി സി യുള്ളൊരു നല്ല സ്പീ ലാർജസ്റ്റ് സ്പെക് വെർഡ് എന്നൊരു സ്പോർട്സ് ബൈക്കാണത് ഇതിനേകദേശം ആറ് ലക്ഷം രൂപയാണ് വില വരുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഞാനത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതാണ് എൻറ്റെ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ എൻറ്റെ കൈയിലുള്ളത് ഒരു ഗ്ലാമർ ബൈക്കാണ് ഇത് അത്യാവശ്യം സിക്സ്റ്റി കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജാണീ ബൈക്ക് എനിക്ക് തരുന്നത് ഈ ബൈക്ക് കൊണ്ട് ഞാനേകദേശം ആ പതിനായിരം കിലോമീറ്ററിനുപരി ഓടിച്ചിട്ടുണ്ട് പല പല സ്ഥലങ്ങളിൽ ട്രിപ്പ് പോയിട്ടുണ്ട് ഇവിടെയുള്ള സ്ഥലങ്ങളായ കക്കാടംപൊയില് വയലട ഇതൊക്കെ ഒരുവിധം വ്യൂ പോയിൻറ്റുകളൊക്കെ ഞാൻ ഈ ബൈക്കിൻറ്റെ മുക മുകളിലിരുന്നാണ് പോയിട്ടുള്ളത് പിന്നെ ഇസഡ്എക്സ്ആർ ടെന്നിനെ പറ്റി പറയുമ്പോൾ ഇതൊരു പച്ച ബൈക്കാണ് ഇത് യമഹാ എന്ന കമ്പനിയുടെ ഒരു ബൈക്കാണ് ഇതെനിക്ക് ഒരു നാൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടെയുള്ളത് ഒരു സ്കൂട്ടിയാണ് സ്കൂട്ടി ഞങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാനും ചെറിയ ചെറിയ യാത്രകൾക്കും നാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുവാനൊക്കെ സ്കൂട്ടിയാണ് ഉപയോഗിക്കാറ് കാരണം അതിന് ക്യാരിയർ എന്ന ഒരു ഓപ്ഷൻ മുന്നിലുള്ളതു കൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും വീട്ടിലെത്തിക്കാൻ സാധിക്കും പിന്നെ മൈലേജ് അതിന് നല്ല അത്യാവശ്യം നല്ല കൂടുതലാണ് അതുകൊണ്ടു തന്നെ നമ്മള് ചുരുങ്ങിയ ചിലവിൽ എല്ലാ സ്ഥലത്തും പോകാനും എല്ലാത്തിനും നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ ഞാൻ ബൈക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം പോയത് ഇവിടുന്ന് ഹൈദ്രാബാദിലേക്കാണ് എൻറ്റെ കസിൻറ്റെ ബുള്ളറ്റ് വച്ചാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബുള്ളറ്റിനെ പറ്റി പറയുമ്പോൾ ഇരിക്കാൻ ഏറ്റവും കംഫോർട്ട് തോന്നിയ ഒരു ബൈക്കാണ് ബുള്ളറ്റ് ബുള്ളറ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹീറ്റാകുകയും ഹീറ്റായതിനുശേഷം കുറച്ചു നേരം നിർത്തിയിടണം നല്ല മെയ്ൻറ്റനൻസ് കൂടുതലുള്ള ബൈക്കാണ് ബുള്ളറ്റ് അതിലൂടെ ഞങ്ങളിവിടുന്നു ഹൈദ്രബാദ് വരെ പോയി തിരിച്ചിവിടെ എത്തി പക്ഷെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും നിൽക്കേണ്ടിയോ ഞങ്ങളെ തളർത്തിയിട്ടോ ഇല്ല ആ ബൈക്ക് അതുകൊണ്ടു ബുള്ളറ്റും എനിക്ക് വളരെ വളരെ ഇഷ്ട്ടമാണ് പിന്നെ ഇത് ബൈക്കിങ്ങ് ഇത് ആക്കാനുള്ള ഒരു ത്വര എനിക്ക് വന്നത് കാരണം എന്താണെന്ന് വച്ചാൽ ഇതിനോടുള്ള ഒരു സ്നേഹം തന്നെയാണ് ബൈക്കിനോടുള്ള ഒരു സ്നേഹം അതോടെ എനിക്ക് ബൈക്കിനോടുള്ള സ്നേഹം വളരെ കൂടി അത്രേ ഉള്ളു